ഞാന് ഓൺലൈനിൽ കൂടി ഒരു വസ്ത്രം വാങ്ങിച്ചപ്പോൾ എൻ്റെ സേവനസംഘത്തിൽ നിന്ന് എനിക്ക് ലഭിച്ച ഒരു നല്ല സഹകരണമായിരുന്നു ഓൺലൈനിൽ ഞാൻ ബുക്ക് ചെയ്ത വസ്ത്രങ്ങൾ എനിക്ക്

കാരണം നിങ്ങളുടെ സേവനം വളരെ സ്പീടപ്പിൽ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ കമ്പനി നല്ല രീതിയിലാണ് ഈ ഓൺലൈൻ സംവിധാനം കിട്ടുന്നത് അതുകൊണ്ടുതന്നെ നിങ്ങള്ക്കു നിങ്ങളുടെ കമ്പനിയിലെ എല്ലാ ഈ പ്രവർത്തനത്തിലും നിങ്ങൾ തന്ന ഈ സാധനങ്ങള് വാങ്ങുമ്പോൾ ഗുണഭോക്താവിനോട് നിങ്ങൾ കാണിക്കുന്ന ഈ സേവന മനോ മനോഭാവത്തിന് ഏറ്റവും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു നിങ്ങളുടെ ഈ സേവന രംഗത്ത് നിങ്ങൾക്ക് മേൽക്കുമേൽ നല്ല വിജയം ഉണ്ടാകട്ടെയെന്നു ആശംസിച്ചുകൊണ്ടും നിങ്ങള്ക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ടും നിർത്തുന്നു